ഗ്രാമീണ മേഖലയില് ഗതാഗതം അഥവാ യാത്ര മാർഗങ്ങളൊക്കെ മെച്ചപ്പെടാൻ മേണ്ടീട്ട് ഏറ്റവും കൂടുതൽ നന്നായിട്ട് വേണ്ടത് ബസ്സ് സൗകര്യയാണ് കാരണം എന്താവെച്ച് കഴിഞ്ഞാല് ബസ്സാവുമ്പോൾ എന്താ ബസ്സാവുമ്പോ എല്ലാർക്കും സൗകര്യപ്രദമായിട്ട് യാത്ര ചെയ്യാൻ കഴിയും ഒരുപാട് ആൾക്കാർക്ക് ബസ്സില് യാത്രയ്യാൻ പറ്റൂല്ലോ അപ്പൊ ചെറിയ ചെറിയ വണ്ടികളൊക്കെ സൗകര്യം ഒരുക്കുന്നതിനേക്കാട്ടിൽ നല്ലത് ഏറ്റവും ഏറ്റവും കൂടുതലായിട്ട് ബസ്സ് സൗകര്യം തന്നെ ഉണ്ടാക്കുന്നതാണ് ഉണ്ടാക്കി കൊടുക്കുന്നതാണ് നല്ലത് അതുകൊണ്ട്തന്നെ നമ്മടെ പ്രദേശത്ത് ഗ്രാമീണ നിവാസികൾക്ക് വേണ്ടീട്ട് ഗതാഗത യാത്ര മാർഗം മാർഗം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടീട്ട് ബസ്സ് സൗകര്യം ബസ്സ് സൗകര്യാണ് നടപടിയാ നടപടികൾ സ്വീകരിക്കയാണ് ചെയ്യുക